നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള സാധനത്തിന് തീരെ ഒരു ക്വാളിറ്റിയില്ല അതുകൊണ്ട് ഞാനീ സാധനം തിരിച്ച് തരികയാണ് ഏ കാരണം നമ്മളൊരു നിശ്ചിത പൈസ വെച്ചിട്ട് വാങ്ങുമ്പോൾ നിങ്ങളതിനുള്ളൊരു ക്വാളിറ്റി ഇതിനു മെയിൻറ്റെൻ ചെയ്യണ്ടേ അതുകൊണ്ടീ സാധനം ഞാൻ തിരിച്ച് തന്നാലോയെന്ന് ആലോചിക്കാണ് കാരണമെന്തായെന്നു വെച്ചു കഴിഞ്ഞാൽ ഒട്ടും തന്നെ ഒരു കോളിറ്റിയില്ലാത്തൊരു സാധനമാണത് ഏ ഇത് നമുക്ക് ജീ ജീവിതത്തിൽ നമുക്ക് ഉപയോഗിക്കാനുള്ളൊരു സാധനമാണ് അപ്പോൾ ഇങ്ങൾ ഇങ്ങളൊരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വിൽക്കുമ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കേണ്ടേ അതിൽ കോളിറ്റിയുണ്ടോ അതായത് ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യൊക്കെ ഇങ്ങൾ ചിന്തിക്കണ്ടേ ഏ വെറുതേ എന്തെങ്കിലും സെൽ വിറ്റിട്ട് കാര്യമില്ലല്ലോ നമ്മക്കീ സാധനം ഉപയോഗിക്കാൻ തീരെ കൊള്ളീല്ലേ അതുകൊണ്ട് നമ്മളത് തിരിച്ചു തരികയാണ് അപ്പോൾ പിന്നെ നിങ്ങൾ എന്തെങ്കിലൊക്കെ ഒരു സാ ഒരു പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ അതിനുള്ള ഒരു ക്വാളിറ്റിയും ക്വാൻഡിറ്റിയും ഇനിയെങ്കിലും ഇങ്ങളതിൽ മെയിൻറ്റെൻ ചെയ്യാൻ ശ്രമിക്കണം കാരണം ഇതു തിരിച്ചു കൊണ്ടുപോകണം ഞാൻ തന്ന പൈസക്കുള്ളൊരു ഗുണ നിലവാരം ഈ സാധനത്തിന് ഉണ്ടായിട്ടെനിക്ക് തോന്നുന്നില്ല